ആ ഹലോ കഴിഞ്ഞ ദിവസം ഒരു സാധനം തന്നിരുന്നല്ലോ അതിൻ്റെ കംപ്ലെയിന്റ് രജിസ്റ്റർ ചെയ്യാൻ വിളിക്കുവാണേ കൊറിയർ സർവീസല്ലേ ഒരു ബെഡ്ഷീറ്റ് ഞാൻ ഓർഡർ ചെയ്തായിരുന്നേ പക്ഷേ അത് കിട്ടിയിട്ടില്ല അത് അത് ആക്ച്യുലി എന്താണ് ചെയ്യേണ്ടത് എങ്ങനെ ഞാൻ അവിടെ ഇല്ലായിരുന്നു ആക്ച്യുലി ഞാനത് മ്മ് മ്മ് അല്ല ഞാൻ ഞാൻ അവിടെ ഇല്ലാതിരുന്നത് കൊണ്ട് നിങ്ങളോട് വീടിൻ്റെ വാതിൽക്കൽ വെച്ചിട്ട് പോയിക്കോളാനാണ് പറഞ്ഞിരുന്നത് അപ്പം അത് കഴിഞ്ഞ് ഞാൻ വന്നപ്പഴാണ് തൻ്റെ ഇതിൻ്റെ ഓപ്പൻഡ് ആണെന്ന് പറഞ്ഞത് അപ്പോൾ എന്താ ചെയ്യും ആക്ച്യുലി കംപ്ലെയിന്റ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതല്ലേ ഞങ്ങൾക്ക് ഓപ്ഷൻ ഉള്ളു പിന്നീടാണല്ലോ ഞാൻ കാണുന്നത് മ്മ് ഇതിന്റെ തലേ ദിവസവും എല്ലാ ദിവസവും ഉള്ളതാണ് അത് ഓപ്പൺഡ് ആയിരുന്നു എന്നുള്ളതാണ് ഓപ്പൺഡ് ആയ ഒരു ബോക്സ് നമുക്ക് റിസീവ് ചെയ്യേണ്ട കാര്യമില്ലല്ലൊ കംപ്ലെയിന്റ് അത് ഉപയോഗിച്ച സാധനം പോലെ ഒരു സീലില്ല അത് ഓപ്പണാകുന്ന നമുക്കതിനൊരു സീല് ഉണ്ടാകുമല്ലൊ അതില്ല പക്ഷെ അത് എങ്ങനെ ഓപ്പണായി എന്ന് എനിക്കറിയില്ലല്ലോ അത് ഈ ഓപ്പണായ ഒരു സാധനം റിസീവ് ചെയ്യേണ്ട കാര്യം എനിക്കില്ലല്ലോ അതാരാ അല്ല ഞാൻ ഡോർപിറ്റിൽ വെച്ചേക്കാനാണ് പറഞ്ഞിരുന്നത് വേറെ ആരും അത് എടുത്തിട്ടുണ്ടാകില്ല വീട്ടിൽ സി സി ടി വി ഉണ്ട് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ വേറെ ആരും എടുത്തിട്ടൊന്നും ഇല്ല കവറവിടെ തന്നെ ഉണ്ട് അപ്പം അത് ഓൾറെഡി അതിൻ്റെ സ്കാനിങ്ങ് അല്ല ഡോർപെറ്റിൽ വച്ചേക്കാനാണ് പറഞ്ഞിരുന്നത് അങ്ങനെ വച്ചേക്കുവായിരുന്നു അത് നമ്മൾ ഡോർപെറ്റിൽ വെച്ചിട്ട് ഡോറിൻ്റെ ജസ്റ്റ് അവിടെ വെച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞ് വീട്ടിൽ ആരും ഇല്ലായിരുന്നു അപ്പം അത് ഓൾറെഡി പേയ്മെന്റ് കഴിഞ്ഞതായത് കൊണ്ട് അവിടെ വെച്ചിട്ട് പൊക്കോളാൻ നിങ്ങളോട് പറഞ്ഞു വെച്ചിട്ട് പോകുകയാണ് ചെയ്തത് ഞങ്ങൾ തോപ്രാം കുടിയാണ്

കംപ്ലെയിന്റ് രജിസ്റ്റർ ചെയ്യാൻ ഓൾറെഡി കാൻസലേഷൻ ചെയ്യാൻ ലൈഫിൽ ഓപ്ഷൻ ഉണ്ടെന്ന് ആണല്ലോ മ്മ് അ ആ മ്മ് അല്ല ഞാനൊരു ആപ്പിൽ രജിസ്റ്റർ ചെയ്യണോ ഇത് റിട്ടേൺ ചെയ്യുക ആണെന്നുള്ള കാര്യം ആപ്പ്ളിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യണോ അതോ നിങ്ങൾ കൊറിയർ പേര് നേരേ വന്ന് തിരിച്ച് എടുക്കുമോ ആമസോനിന്റെ ആയിരുന്നു മ്മ് അതെ അതെ അത് ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ആയിരുന്നു മ്മ് നിങ്ങൾ ഇനി എപ്പഴാണ് ഈ വഴി സർവീസ് ഉള്ളത് നിങ്ങൾ ഈ റൂട്ടിൽ എല്ലാ ദിവസവും ഉള്ളതാണോ

ആ വാ വൺ വീക്ക് ഡിലെ ഉണ്ടാകുമോ എനിക്ക് കിട്ടാൻ പക്ഷേ ഞാൻ ഇതിന് മുൻപ് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്തത് അല്ല എനിക്കൊരു കാൻസൽ വേണമെന്ന് വിചാരിച്ച് ഞാൻ വിളിച്ചിട്ട് പിറ്റേ ദിവസം വന്ന് അവർ എടുക്കുക ഉണ്ടായല്ലൊ സെയിം ആയിരുന്നു നിങ്ങളുടെ കൊറിയർ സർവീസ് ആയിരുന്നൂ ആമസോണിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തതായിരുന്നു ഞാനത് കാൻസൽ ചെയ്തിട്ട് കൊറിയർ പിറ്റേ ദിവസം വന്ന് തന്നെ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു

മ്മ് മ്മ് മ്മ് ഇത് സാധനങ്ങൾ കളക്ട് ചെയ്യുന്നതിന് മുൻപ് ഞാൻ നിങ്ങളുടെ കൊറിയർ സർവീസിൽ കംപ്ലെയിന്റ് രജിസ്റ്റർ ചെയ്യണ്ടതുണ്ടോ അതോ ഇത് കാൻസലേഷൻ ഓർഡർ ആമസോണിൽ കൊടുത്താൽ മതിയോ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ഓക്കെ ആ